നഗരങ്ങളിലേക്ക് ഉള്ള കയറ്റങ്ങൾ സംഭിക്കുന്നിടയിലും നിങ്ങൾ ഗ്രാമത്തിൽ തന്നെ തുടരാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട് ഒന്ന് നഗരങ്ങളിലേക്കാലും നല്ല ശുദ്ദമായ വായു മറ്റ് സാഹചര്യങ്ങളും ഒക്കെ ഗ്രാമങ്ങളിലാണ് ഉള്ളത് അതുകൊണ്ടാണ് ഗ്രാമങ്ങളിൽ തന്നെ ജീവിത സൗകര്യം പിന്നെ സത്യസന്ധരായ ആൾക്കാരും ഒക്കെ കൂടുതലുള്ളർ ഗ്രാമങ്ങളിലാണ് നിഷ്കളങ്കരായ ആൾക്കാരുള്ളത് ഗ്രാമങ്ങളാണ് വഞ്ചനേം ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ടാണ് അതോടൊപ്പം എന്ന് വെച്ചാൽ ഈ ചില കാരണങ്ങൾ കൊണ്ട് പോകാൻ സാഹചര്യമില്ലാത്ത കൊണ്ടും ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുണ്ട് അതൊണ്ടന്നെ സാമ്പത്തികമായിട്ട് ഗ്രാമം നഗരങ്ങളിലേക്ക് എത്തിപ്പെടാൻ പിടുത്തുള്ള സ്ഥലം വീടൊക്കെ എന്നാ ആരും വാങ്ങാനില്ലാത്ത കൊണ്ടും ഒക്കെ ഗ്രാമങ്ങളിൽ തുടരുന്ന ഒത്തിരി ധാരാളം ജനങ്ങളുണ്ട് അതോണ്ട് ഗ്രാമങ്ങളിൽ താമസിച്ചാൽ പിന്നെ കുട്ടികളുടെ ഭാവി ഓർക്കുമ്പോൾ വളരെ വിഷമമാണ് ഗ്രാമം ഒന്ന് മക്കൾക്ക് ഒക്കെ ജോലിയില്ല ജോലി ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് അതാണ് ഒരു പ്രധാന കാരണം ഒരു ഒരു ജോലി സാധ്യത വളരെ കുറവാണ് നഗരങ്ങളിൽ ആണെങ്കിൽ ജോലി സാധ്യയും ഉപജീവനമാർഗ എന്തെങ്കിലും ഒക്കെ തേടി എടുക്കാനും അന്വേഷിക്കാനും ഒക്കെ സഹചര്യമുണ്ട് ഒന്ന് രണ്ടാമത് വിദ്യാഭ്യാസപരമായിട്ടും കുട്ടികളെ പഠിപ്പിക്കനാം എങ്കിൽ ഗ്രാമങ്ങളിലെക്കാലും സൗകര്യം ആ എന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ കൂടുതൽ ഉള്ളതും നഗരങ്ങളാണ് അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഗ്രാമങ്ങളിൽ നിന്നും എന്നാ നഗരങ്ങളിലേക്ക് കൂടിയേറി പാർക്കാൻ വിവിധ സൗകര്യങ്ങളും മറ്റുപല സൗകര്യങ്ങൾ ഒക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഗ്രാമങ്ങളിൽ തന്നെ താമസിക്കുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എന്നാ ഓരോ ജില്ലയിൽ നിന്നും കുടി ഇറക്കി കുടി ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് ആൾക്കാർ നിർവാഗവില്ലാതെ ഒരുപാട് മാർഗവല്ലാത്ത ആൾക്കാരാണ് ഇപ്പം ഗ്രാമങ്ങളിൽ ഭൂരിപക്ഷം നല്ലൊരു ഒരു അറുപത് ശതമാനം ആൾക്കാരും കിടക്കുന്നത് എല്ലാവരും ഇവിടുന്നാരെങ്കിലും സർവെ മറ്റ് വാങ്ങാനോ മറ്റ് എന്തെങ്കിലും ചെയ്യാൻ ആൾക്കാർ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് പോവാൻ ധാരാളം ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ ഉണ്ട് മറ്റ് ജീവിത നിലവാരത്തിൽ ഒക്കെ കൂടുതലും നഗരങ്ങളിലാണ് അതിന്റെ സൗകര്യങ്ങളും വിദ്യാഭ്യാസപരമായിട്ട് ജോലി സംബന്ധമായും മാത്രമുള്ളതാണ് പിന്നെ പിന്നെ ദാരിദ്ര്യം കൊണ്ട് ഒക്കെ ഗ്രാമങ്ങൾ കൃഷി ചെയ്ത് സ്വന്തമായിട്ടുണ്ട് അങ്ങനൊക്കെ ജീവിക്കുന്നത് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവൂല്ല ഒരു ചൊല്ലുള്ളത് പോലെ അത്താഴത്തിന് മുടങ്ങയില്ല അട്ടക്കാല പിടിക്കുകയില്ലാ എന്നുള്ള രീതിയിൽ സാമ്പത്തികമായിട്ട് ഉയരില്ല മറ്റുള്ളൊരു നല്ല ജീവിതത്തിൻ്റെ നല്ല സാഹചര്യങ്ങൾ ഒന്നും അവർ അനുഭവിച്ചിട്ടില്ല അങ്ങനെ ഇങ്ങനെ അധ്വാനിച്ച് നിരന്തരമായി അധ്വാനിച്ച് നിരുവത്തന ഇങ്ങനെ ഇവിടെ കിടക്കുന്നു മറ്റേ ജീവിതം എന്താണെന്നോ മറ്റ് ജീവിതം ഒരിക്കലെ ഉള്ളു അത് ആസ്വദിക്കണമെന്നോ അത് ആ സമയത്തന്ന് ഒരു യാത്ര ചെയ്യാനോ മറ്റു മേഖലകൾക്ക് ഒന്ന് പോകാനൊക്കെ അവർക്ക് സാധിച്ചട്ടില്ല ഇരുപത്തി നാല് മണിക്കൂറും ഈ ഗ്രാമങ്ങളിൽ അവർ മറ്റ അവരെ സാമ്പത്തികമാണ് അതിനെ നിർബന്ധമാക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് താമസിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് പിന്നെ കാലാവസ്ഥയും വായും വെള്ളം ഒക്കെ നല്ലത് ഏറ്റവും എപ്പോഴും നല്ലത് എന്നാ ഗ്രാമങ്ങളിലാണ് ശുദ്ധമായ വായു ശുദ്ധമായ വെള്ളം മറ്റ് ഇതൊക്കെ മറ്റ് രോഗങ്ങളൊക്കെ കുറവാണ് പിന്നെ ആരോഗ്യപരമായിട്ട് മനുഷ്യൻ നേട്ടൊള്ളന്ന് ഗ്രാമങ്ങളിൽ ഉള്ള ആൾക്കാർക്കാണ് ജനങ്ങൾക്കാണ് ആരോഗ്യപരമായിട്ടും അതിന് നേട്ടൊള്ളത് ദീർഘായിസ്സും ഇതൊക്കെ ഉള്ളതാണ് അത് കൊണ്ട് അങ്ങനെ അതുകൊണ്ടാണ് പിന്നെയും ഗ്രാമത്തിൽ തന്നെ തുടരുന്നത് പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ അനുകൂലമായിരിക്കും ഹൈ റേഞ്ചിനൊക്കെ സംബന്ധിച്ച് സുഖ മായ ഒരു ശീദോഷണം മേഖലയായത് കൊണ്ട് ഒരു എ സി കിടക്കുന്ന പോലെ ഹൃദീയമാണ് വേനലായ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അത് അങ്ങനെ കഴിഞ്ഞു കൂടുന്നു പിന്നെ അത്കൊണ്ട് ഗ്രാമങ്ങളിൽ തുടരുന്നു തുടരാൻ എന്താ അല്ലാതെ മറ്റ് കാരണം കൊണ്ടൊന്നുമല്ല